എട്ടു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി നാന്നൂറ്റി മുപ്പത്തിനാല് എട്ട് അഞ്ചു ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആറു ലക്ഷത്തി അമ്പത്താറായിരത്തി അറുനൂറ്റി നാല്പത്തി നാല് രണ്ടു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തിത്തൊള്ളായിരത്തി ത്തൊണ്ണൂറ്റി ഒന്പത്